ഇപ്പം ഐഐടി ഐഐഎസ്സി ഐഐഎം അങ്ങനെ ഒള്ള ഒരുപാട് വല്യ സ്ഥാപനങ്ങള് ഉണ്ടിപ്പോൾ നമ്മുക്ക് നമ്മടെ കേരളത്തില് കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഇപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ്ക്ക് അതൊക്കെ ആ സ്ഥാപനങ്ങളൊക്കെ നമ്മുക്ക് അതായത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതാണോന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരിക്കലുവല്ല കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ഒരുപാട് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഇതില് അതായത് ജോലിക്ക് കയറുവാണെങ്കിൽ അങ്ങനെയാണെങ്കി ഒരുപാട് ഡൊണേഷൻ കാര്യങ്ങളൊക്കെ ഇണ്ടാവും പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കി അതുപോലെ നമുക്ക് പഠിക്കാനാണെങ്കി നമുക്ക് ഒരുപാട് ഡൊണേഷനും കാര്യങ്ങളും ഫീസും അതുപോലെതന്നെ ഹോസ്റ്റൽ ഫീസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് അതപ്പൊ അതുകൊണ്ട്തന്നെ നമ്മക്ക് ഇപ്പോൾ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ടെങ്കിലും അവർക്കൊന്നും അവിടെ ഒരു എത്തിച്ചേരാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം എന്താന്ന് വിദ്യാർഥികൾക്ക് ഒരുപാട് അങ്ങനെയുള്ള സമ്മർദ്ദൊക്കെ ഇണ്ടാവുന്നൊണ്ട് കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് ക്യാഷില്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർഥികൾക്ക് അതൊക്കെ ഒരു സമ്മർദ്ദം തന്നെയാണ് കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കി അവർക്ക് പഠിക്കണംന്ന് ആഗ്രഹം ഒണ്ട് പക്ഷെ പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥാന്ന് വെച്ചിട്ടുണ്ടെങ്കി അതൊരു ഭയങ്കര ഒരു ദയനീയമായ ഒരവസ്ഥയാണ് കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്നത്ത കാലത്തൊക്കെ കുട്ടികളൊക്കെ ഒരുപാട് നല്ലോണം പഠിക്കുന്ന കുട്ടികളും അതായത് പട്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിരിക്കും അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവർക്കിങ്ങൻത്ത സ്ഥാപനങ്ങളൊന്നും ലഭിക്കാതാവുകാന്ന് വെച്ചിട്ടുണ്ടെങ്കി അത് വല്ലാത്തൊരു സമ്മർദ്ദം തന്നെയാണ്